ഞാന് കലാഭവന് മണിയുടെ പാട്ട് കലാഭവന് മണിയുടെ പാട്ട് നേരിട്ട് കേട്ടിട്ടുണ്ട് നല്ല അടിപൊളി പാട്ടാണ് ഞങ്ങള് കുടുംബസമേതം പോയി കണ്ടിട്ടുണ്ട് ചാലക്കുടിക്കാരന് കലാ മണി വളരെ നല്ല പാട്ടുകാരനും കോമഡി കന സിനിമായും എല്ലാം നല്ല കഴിവുള്ളയാളായിരുന്നു നല്ല പാട്ടാണ് ഞങ്ങള് നേരിട്ട് കേ കണ്ടിട്ടുണ്ട് നല് പിന്നെ നമ്മള്ക്ക് വളരെ രേസം രസം തോന്നിയിട്ടുണ്ട് നല്ല രീതീ ഞങ്ങളാസ്വദിച്ചു ഞങ്ങള് കൈയ്യടിക്കുകയും ഞങ്ങള് വളരെ രീതീ നല്ല പിന്നെ നല്ല രീതീ ഞങ്ങള് ആസ്വദിച്ചിട്ടുണ്ട് ഞങ്ങള്ക്കതിന് നല്ല രീതിയില് അസ്വദിക്കുവാനും സന്തോഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ആ പാട്ട് കേട്ട് വളരെ സന്തോഷത്തോടെ ഞങ്ങള് ഡാന്സ് കളിക്കുകയും കൈയ്യടിച്ച് പാട്ട് പാടി കൂടെ പാടി ഞങ്ങള് ഞങ്ങളുടെ അടുക്കല് വന്ന് ഞങ്ങളെ വിഷ്യ്യേം ഒക്കെ ചെയ്ത് ഞങ്ങള്ക്കു വളരെ സന്തോഷം തോന്നി കലാഭവന് മണിയെ കണ്ടപ്പോള് ആന്നയാ അദ്ദേഹം മരിച്ചുപോയെങ്കിലും ആ ഓര്മയെന്നും ഞങ്ങള്ക്കുണ്ട് ഞങ്ങളിലുണ്ട് സന്തോഷമുണ്ട് നല്ല പാട്ടുകാരന് അതുപോലൊരു പാട്ടുകാരന് ഞങ്ങള്ക്ക് നേരിലിനിയും യേശുദാസിനെയും ചിത്രയെയും ഒക്കെ കണ്ടാല് കൊള്ളാമെന്നൊരാഗ്രഹം ഉണ്ട് ഞങ്ങള്ക്കതെന്നെങ്കിലും സാധിക്കുമെന്ന് ഞങ്ങള് പ്രതീക്ഷിക്കുന്നു നല്ല പാട്ടുകാര് അവര്ക്ക് അത് കലാഭവന് മണിയെ സംബന്ധിച്ചെടത്തോളോം പറഞ്ഞ് കഴിഞ്ഞാല് കലാഭവന് മണിയെല്ലാവര്ക്കും സഹായിയായിരുന്നു നല്ല പാട്ടുകാരന് നല്ല കോമഡിയന് അങ്ങനെ ചാലക്കുടിക്കാരന് നല്ല നല്ല പാട്ടുകള് സ്വന്തമായി എഴുതി പാടി അതു നമ്മള്ക്ക് തീര്ച്ചയായും വേര്പാടുമൊരു സങ്കടമായിരുന്നു നല്ല പാട്ടുകള് നല്ല നല്ല പാട്ടുകള് നമ്മളെ കരയിപ്പിക്കുന്ന പാട്ടുകളാണ് കലാഭവന് മണി പാടിക്കൊണ്ടിരുന്നത് എഴുതി എഴുതി പാടിക്കൊണ്ടിരുന്നത് ഒത്തിരിയൊത്തിരി ഒത്തിരി നല്ല പാട്ടുകള് അത് കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകള് അങ്ങനെ നമ്മള് ഒത്തിരി അസ്വദിച്ചിട്ടുണ്ട് ആ ഒരു കണ്ടയാ സമയം ഞങ്ങള്ക്ക് മറക്കാനാവാത്ത ഒരു നിമിഷമായിരുന്നു നേരിട്ട് കണ്ട് പാട്ട് കേട്ട് ആസ്വദിക്കാനും ഞങ്ങളുടെ ആ സന്തോഷം പങ്കുവയ്ക്കുവാനുമൊക്കെ സാധിച്ചതില് ഞങ്ങള്ക്കൊത്തിരി സന്തോഷമുണ്ട് ഞങ്ങള്ക്ക് ഇനിയും ഇങ്ങനെയുള്ള നല്ല പാട്ടുകാരുടെ പാട്ട് കേട്ടാല് കൊള്ളാമെന്നൊത്തിരി ആഗ്രഹമുണ്ട് ഒത്തിരിയൊത്തിരി ഒത്തിരി നല്ല പാട്ടുകാരുണ്ട് അതീ പിന്നെ യേശുദാസ് ചിത്രയൊക്കെ ഉണ്ട് ഞങ്ങള്ക്ക് അതില് ഇതില് അതിലും വേറെയാളുകളുണ്ട് അതിലാരുടെയെങ്കിലും ഒക്കെ പാട്ട് ലൈവായിട്ട് ഞങ്ങള്ക്ക് കേട്ടാക്കൊള്ളാമെന്നാഗ്രഹമുണ്ട് അതെന്നെങ്കിലും നടക്കും എന്ന് ഞങ്ങള് വിചാരിക്കുന്നു കലാഭവന് മണിയുടെ പാട്ട് ഞങ്ങള്ക്ക് കലാഭവന് മണിയെ കാണണമെന്നും കലാഭവന് മണിയുടെ പാട്ട് അടുത്തുനിന്ന് കേള്ക്കണമെന്നുമൊക്കെ ഞങ്ങളാഗ്രഹിച്ചതായിരുന്നു അത് അതുപോലെ ഞങ്ങള്ക്ക് കേള്ക്കാന് പറ്റി അതാണ് ഏറ്റവും വലിയ സന്തോഷം കലാഭവന് മണി ഞങ്ങക്ക് ഒത്തിരി പാട്ടിലൂടെ ഞങ്ങള്ക്കൊരുപാട് ഞങ്ങള്ക്കാസ്വദിക്കാന് പറ്റി കലാഭവന് മവിടെയാന് പാടിയ നിമിഷങ്ങള് നല്ല സന്തോഷം കലാഭവന് മണിയുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങള് കണ്ടു അവരും എല്ലാവരുമായിട്ടും ഞങ്ങള് സന്തോഷം പങ്കുവയ്ക്കു പങ്കുവയ്ക്കുകയും എക്കെ ചെയ്തു അങ്ങനെ ഞങ്ങള്ക്കെ ആ കലാഭവന് മണിയുടെ പാട്ട് കേട്ട് കേട്ട് കാണാനും കേള്ക്കാനും എക്കെ അവസരം നല്കി കിട്ടിയതിന് ഒത്തിരി സന്തോഷം ഞങ്ങള്ക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഇനിയും ഇങ്ങനെയുള്ളവരുടെ പാട്ട് കേള്ക്കാനും ആസ്വദിക്കുവാനും